എനിക്ക് ഇപ്പം കളിക്കാനായിട്ട് ഇഷ്ടമുള്ള ഗെയിമെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഇപ്പോളുള്ള ആൾക്കാർ എന്നു പറഞ്ഞാൽ കൂടുതലായിട്ടും മൊബൈലിലൂടെ കളിക്കുന്ന കളികളാണ് കൂടുതലായിട്ടും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാണ്ട് നമ്മളുടെ ഇവിടെത്തന്നെ ഇഷ്ടം പോലെ ഗെയിംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കൂടുതലായിട്ടും എനിക്ക് കളിക്കാൻ ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട് ബോളാണ് ഫുട് ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഗെയിം ആണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആരോഗ്യം നല്ല നില നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടി സാധിക്കും പിന്നെ നമുക്ക് ആൾക്കാരുമായിട്ട് മിംഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ നമുക്കൊന്ന് മൈൻഡ് ഒക്കെ ഫ്രീ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ടർഫിലും കാര്യങ്ങളും കാര്യങ്ങളിലുമൊക്കെയാണ് കൂടുതലായിട്ടും പോയി കളിക്കുക അല്ലാത്ത ഗ്രൗണ്ടുകളൊക്കെ വളരെയധികം കുറവാണ് പിന്നെ ബീച്ചുകളിൽ ഒക്കെ വോളി ബോൾ കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ടാകും അപ്പം അങ്ങനെ ഞാൻ പോയി കളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഗെയിംസും കാര്യങ്ങളിലൊക്കെ നമ്മളുടെ മാളുകളിലും കാര്യങ്ങളിലും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയും കളിക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ പല രീതിയിലുള്ള കളികളും നമ്മൾ കൂടുതലായിട്ടും കളിക്കാർ കളിക്കാറുണ്ട് പിന്നെ ക്രിക്കറ്റ് കളിക്കാറുണ്ട് ക്രിക്കറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ടർഫിൽ തന്നെ പല രീതിയിലുള്ള ടൂർണമെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പം ആ ടർഫിലിരുന്നിട്ടും കളിക്കാറുണ്ട്